വിദ്യാലയ കാലഘട്ടത്തില് ചിത്ര രചന പഠിക്കുവാനായിട്ട് പ്രത്യേകമായിട്ടൊര് പിരീഡുകളുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ വ്യക്തമായൊരു പരിശീലനം ലഭിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടങ്കിൽ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ചിത്രരചനയിൽ പ്രാവീണ്യമുള്ള ചിലരുടെ വൈഭവത്തെ ഉയർത്തുവാനായിട്ട് അത് സഹായിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായൊരു ചട്ടക്കൂടിൽ നിന്ന് കൊണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നാൽപ്പതോളം വരുന്ന കുട്ടികളെയൊക്കെ ഒരു ക്ലാസ് റൂമിൽ ചിത്ര രചനയുടെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണത് ഏറെ ശ്രമകരമായൊരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ചിത്രകലാദ്ധ്യാപകരുടെ സ്വാധീനം അല്ലെങ്കിൽ അവരുടെ സമയം കുറച്ച് കൂടി മെച്ചപ്പെടുത്തുവാനും അല്ലെങ്കിൽ ഓരോ വിദ്യാലയത്തിലും ഒരു ചിത്രരചനദ്ധ്യാപകനെ ചിത്ര അദ്ധ്യാപകനെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊക്കെ വലിയ മാറ്റങ്ങള് വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും പണ്ട് കാലത്ത് പഠിക്കുന്ന കാലത്തൊക്കെ ഒരു പീരീഡുണ്ടാകും ആ സമയത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാ കുട്ടികളുടേയും കഴിവുകളെ അളക്കാനും അവർക്ക് വേണ്ട അവസരം കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ നടക്കാത്ത കാര്യമാണ് അപ്പം കുറച്ച് കൂടി മെച്ചപ്പെട്ട അവസരങ്ങളൊരുക്കിക്കൊണ്ട് കൂടുതൽ സമയം നൽകി കൊണ്ട് പ്രഗത്ഭരായ അദ്ധ്യാപകരെ നിയമിച്ച് കൊണ്ടൊക്കെ അതിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തുവാനായിട്ട് സാധിക്കും